ഹലോ ഇത് കൂള് ഡേയ്സ് അല്ലേ ആഹ് ആ ഞാന് നേരത്തെ വിളിച്ചിട്ടുള്ള മിന്നു ആയിരുന്നേ ആഹാ എനിക്ക് ഒരു കേക്ക് ഓഡറ് ചെയ്യാനായിരുന്നല്ലോ അവിടെ കാണുമായിരിക്കുമോ ഇപ്പോൾ ഇപ്പോൾ അവൈലബിള് ആയിട്ടുള്ളത് ഏതൊക്കെയാണ് പൈനാപ്പിള്ന്റെ ഒക്കെ കേക്ക് കാണുമോ പൈനാപ്പിള് വാനില അതൊക്കെ ആഹ് അപ്പോൾ അതിന് റേറ്റ് എത്രയായിരിക്കുമെന്ന് പറയാമോ ആഹ് അത് ഒരു ബര്ത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ടായിരുന്നേ അപ്പോൾ എന്റെ ഒരു എന്റെ അനിയത്തിയുടെ കൊച്ചിന്റെ ഫസ്റ്റ് ബര്ത്ത്ഡേ ആയിരുന്നു അപ്പം അവര്ക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പം ഞങ്ങളത് വലിയ ഫംഗ്ഷനായിട്ട് നടത്താന് വേണ്ടിയിട്ടായിരുന്നെ അപ്പം അതൊന്ന് ഞങ്ങൾക്ക് ഈ ദിവസങ്ങളിൽത്തന്നെ അതായത് വരുന്ന പന്ത്രണ്ടാം തീയതിയാണ് ബര്ത്ത്ഡേ ഫംഗ്ഷന് അപ്പം അതിന് മുമ്പായിട്ട് ഞങ്ങൾക്കൊന്ന് എത്തിക്കാന് പറ്റുമോ ഏതൊക്കെ ഫ്ലേവറ് കാണുമെന്നെ വേറെ അവർ കൂടുതലും ഇഷ്ടപ്പെടുന്നത് അതായത് അവള്ടെ ബര്ത്ത്ഡേയുടെ ഫംഗ്ഷന് അവർ എടുത്തേക്കുന്ന ഡ്രസ്സ് വയലെറ്റ് കളറ് ആണേ അപ്പം അതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കേക്ക് ഉണ്ടാവുമോ ഈ പല ഷേപ്പിലുള്ള ആണെങ്കിൽ കുഴപ്പമില്ല ഇപ്പം റെക്റ്റാങ്കിള് ഷേപ്പിലുള്ള കേക്ക്സ് ഒക്കെ ഉണ്ടല്ലോ ഒത്തിരി പേര്ക്ക് കൊടുക്കാന് പാകത്തിനുള്ള അപ്പം അങ്ങനെത്തെയെക്കെ അവിടെ കാണുവായിരിക്കുമോ ആ പറഞ്ഞോളൂ റെഡ് വെല്വറ്റിനെത്രയാ റെഡ് വെല്വറ്റിനെത്രയാ

എന്ന് പറഞ്ഞ് ആഹ് അതിൽ കൂടിയത് പിന്നെ വേറെ ഒത്തിരിയുണ്ടോ കുറഞ്ഞതാണ് മാക്സിമം നമുക്ക് ആഹ് അതല്ല റെഡ് വെല്വറ്റിന്റെ തന്നെയുണ്ടാവുമോ വൈറ്റ് ചോക്ലേറ്റാ റെഡ് വെല്വറ്റിന്റെത് എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടെ എടുക്കായിരിക്കുമെന്ന് കാരണം ഞങ്ങളൊരു ഫംഗ്ഷനായിട്ട് നടത്തുന്നതുകൊണ്ടെ ഒരുപാട് പേര് വരുന്നത് ആണേ ഒത്തിരി പേരെ വിളിച്ചിട്ടുണ്ട് ഈ ഫംഗ്ഷന് വേണ്ടിയിട്ട് അപ്പം അതുകൊണ്ട് നല്ലത് ഒരു അഞ്ച് ലെയർ ആയിട്ട് ഈ ഏറ്റവും ടോപ്പിൽ ഇച്ചിരികൂടെ കുഞ്ഞായിട്ട് വരുന്ന രീതിയിലുള്ളത് ഇല്ലേ റൗണ്ട് ഷേപ്പില് ഉള്ളത് ആണെങ്കില് ഇച്ചിരികൂടെ സേഫ് ആയിരിക്കും ആ പിന്നെ എക്സ്ട്രാ വേറെ കേക്കുംകൂടെ വേണ്ടി വരുവേ അപ്പം അത്കൊണ്ട് ആഹ് ഓക്കെ അപ്പം അതിനെത്രയാ ആയിരം രൂപയാണ് അല്ലേ ഓക്കെ അതുപോലെത്തന്നെ ഈ ഇച്ചിരികൂടെ വില കുറച്ച് കിട്ടുന്ന വേറെ ഏതെങ്കിലും ഇതുണ്ടാവുമോ ഇത് ആ അന്ന് ഈ ഞാനീ പറഞ്ഞപോലെത്തന്നെ കേക്ക് വേണം പക്ഷെ ഇച്ചിരികൂടെ റേറ്റ് കുറച്ച് കളറ് വയലെറ്റ് തന്നെയാണ് ഇച്ചിരികൂടെയും നമ്മൾ നോക്കുന്നത് പക്ഷെ റെഡ് വെല്വറ്റിന്റെത് അത് ആ കളറല്ലെ പറ്റുവൊള്ളൂ അത്കൊണ്ട് റെഡ് വെൽവെറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ സ്റ്റാന്റെഡ് ആണല്ലോ എന്ന് വിചാരിച്ചായിരുന്നേ നിങ്ങളുടെ കട എവിടെയായിട്ടാണ് മുരിക്കാശ്ശേരിലെവിടെയായിട്ടാണെന്ന് പറയാമോ ഞാനാ ഞാനാദ്യം ആദ്യമായിട്ടാണീ ഈ കടേനെ കുറിച്ച് കേൾക്കുന്നത് അനീറ്റ തന്നെയാണ് കടേനെപ്പറ്റി പറഞ്ഞതുവേ അപ്പം അവൾക്ക് വിളിക്കാനായിട്ട് തിരക്കായത് കൊണ്ടാണ് ഞാന് വിളിച്ചത്

ആഹ് അടുത്താണല്ലേ ഒരുപാട് ദൂരം കാണില്ലല്ലോ വരുന്ന പന്ത്രണ്ടാം തീയതിയാണ് ഫംഗ്ഷന് അതിന് മുമ്പായിട്ട് നമുക്ക് കിട്ടണം വൈകുന്നേരം മാക്സിമം നേരത്തെ എത്തിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് സേഫ് ആയിരുന്നു കാരണം ഞങ്ങൾ വേറെ ഒരു കാര്യത്തിനും കൂടെ പോവാനുണ്ടായിരുന്നെ വേറൊരു ഫംഗ്ഷനും കൂടെ അപ്പം അതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾക്കെത്തിക്കാന് പറ്റുമോ ഒരു മാക്സിമം കൂടിപ്പോയാൽ ഒരു ത്രീ തേട്ടിക്ക് മുമ്പായിട്ട്

ഓക്കെ ഓക്കെ ഈ ഈ കടയുടെ എന്തോ ആഹ് ലൊക്കേഷന് അയച്ചേക്കാം കേട്ടോ ഈ നമ്പറിലേക്ക് തന്നെ അയച്ചാൽ മതിയോ

ബര്ത്ത്ഡേ പന്ത്രണ്ടിനാണ് ബര്ത്ത്ഡേ ഫസ്റ്റ് ബര്ത്ത്ഡേയാണ് ഫസ്റ്റ് ബര്ത്ത്ഡേ ആണ് അതിൽ കേക്കിൽ എഴുതാനായിട്ട് ഹാപ്പി ബര്ത്ത്ഡേ കുഞ്ഞുമോള് എന്നിട്ടാൽ മതി അങ്ങനെ എഴുതിയാൽ മതി എനിക്ക് തോന്നുന്നു വൈറ്റ് വൈറ്റ് കളര് ക്രീം വെച്ച് വെക്കുന്നതായിരിക്കും ഇച്ചിരികൂടെ നല്ലത് ആഹ് പിന്നെ ഇപ്പോഴത്തെ ഈ ചില ഫംഗ്ഷന്സ് ഒക്കെ കണ്ടിട്ടുണ്ട് ഇപ്പം പിള്ളേരുടെ ബര്ത്ത്ഡേ ആഹ് ആഹ് ആഹ് ഓക്കെ കേട്ടോ അപ്പം ഞങ്ങൾ വന്നേക്കാം അല്ലെങ്കില് നിങ്ങൾ പറഞ്ഞാലും മതി അറിയിച്ചാൽ മതി ഞങ്ങൾ ജസ്റ്റ് വരാന് പറ്റുമെങ്കിൽ വന്നേക്കാം ത്രീ തേർട്ടിക്ക് മുമ്പായിട്ട് എത്തിക്കുക കേട്ടോ